ഇത് സ്വിഗ്ഗിയുടെ ഡെലിവറി കമ്പനിയല്ലേ ഞാനൊരു പരാതി പറയാനാണ് വിളിച്ചത് എൻ്റെ ഡെലിവറി നമ്പറ് അഞ്ച് രണ്ട് മൂന്ന് ഒന്ന് പൂജ്യം രണ്ട് അഞ്ചാണ് ഞാൻ കുമാർ കഫേന്നു പറഞ്ഞിട്ട് നമ്മുടെ കിള്ളിപ്പാലത്തുള്ളൊരു ഹോട്ടലിന്ന് ഞാൻ കുറച്ച് ഒരു വീട്ടിലൊരു പാർട്ടിക്കുവേണ്ടി കുറച്ച് ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു രാവിലെ ഒരു പതിനൊന്നരയോടുകൂടിയാണ് ഞാൻ ഓർഡർ ചെയ്തത് ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഒൻപത് ചിക്കൻ ഫ്രൈഡ് റൈസും അഞ്ച് വെജ് ബിരിയാണി അഞ്ച് ചില്ലി ചിക്കൻ ആറ് ചില്ലി പൊട്ടറ്റോ ഒൻപത് നാടൻ കോഴി പെരട്ട് പത്ത് ചിക്കൻ ഫ്രൈ പിന്നെ രണ്ട് ലിറ്ററിൻ്റെ ഒരു സെവന അപ്പ് ഒരു മിറ്ണ്ട ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് പക്ഷേ വന്നപ്പോൾ രണ്ട് ചിക്കൻ ഫ്രൈഡ് റൈസ് ര മൂന്ന് ബിരിയാണി വെജ് ബിരിയാണി ആറ് ഹണി ചില്ലി പൊട്ടറ്റോ നാല് ചില്ലി ചിക്കൻ രണ്ട് നാടൻ കോഴി പെരട്ട് പിന്നെ അഞ്ച് ചിക്കൻ ഫ്രൈയ്യും പിന്നൊരു സെവന അപ്പും മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ അതിനെപ്പറ്റി കംപ്ലെയിന്റ് ചെയ്യാനാണ് വിളിച്ചത് ഇത്രയും ഐറ്റംസ് മിസ്സിങ്ങാണ് അപ്പോൾ എനിക്കൊരു ഇവിടെ നിറയെ ഗെസ്റ്റുള്ളതുകൊണ്ട് രണ്ട് മണിക്ക് പാർട്ടി രണ്ട് മണിക്കെങ്കിലും നമ്മൾ അവർക്ക് ഫുഡൊക്കെ കൊടുക്കണമല്ലോ അപ്പോൾ നിങ്ങൾ ഏകദേശം ഒരു വൺ അവറിൻ്റെ അകത്തൊക്കെ ഇതൊന്ന് എത്തിക്കാൻ പറ്റുമോ എൻ്റെ അഡ്രസ്സ് വന്നിട്ട് ടി സി ഇരുപത്തെട്ട് ബാർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ലാവണ്യ ഇലങ്കം നഗർ ലൈൻ ജി തൈക്കാട് തൈക്കാട് പി ഓ തിരുവനന്തപുരം ഇതാണ് എൻ്റെ എന്തുവാണ് അഡ്രസ്സ് അപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറ് ഈ നമ്പറ് തന്നെയാണ് നമ്പറ് സെവൻ സീറോ വൺ ടു സീറോ ണയൻ സീറോ ണയൻ സെവൻ സീറോ ഇതാണെൻ്റെ ഫോൺ നമ്പറ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ എൻ എന്തായാലും ഒരു ഒരു ഒരുമണിക്കൂറിൻ്റെ അകത്തൊക്കെ എത്തിച്ചാൽ നല്ലതായിരിക്കും കാരണം ഇവിടെ ഇത്രയും ആൾക്കാരുണ്ടപ്പം ഇത് ഭയങ്കര മെനക്കേടാണ് ഇല്ലെങ്കിൽ ഓക്കേ അപ്പോൾ എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ശരിയെന്നാൽ